കളിക്കാനിഷ്ടമുള്ള കളി പറയുമ്പോൾ ഷട്ടിലാന്ന് ഫസ്റ്റ് ഷട്ടിലിനു മുൻപ് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായത് ഫുട്ബോളാണ് ഫുഡ്ബോൾ നല്ല പണ്ട് പണ്ട് പറയുമ്പോൾ ഒരഞ്ചാറേഴ് കൊല്ലം മുൻപേ കളിച്ചു കൊണ്ടായിനി പിന്നെ അതിനോടുള്ളൊരു എന്ത് കാലിനൊരു ചെറിയ പ്രശ്നം അതിനോടുള്ളൊരു ഇതു പോയി എന്നാലിപ്പം കളിനോക്കുക ഫുട്ബോളാണ് ഏറ്റവും കളി നോക്കുക ഏറ്റവും ഇഷ്ടമുള്ള ഏത് ചോദിച്ചാൽ ഞ ഫുട്ബോൾ തന്നെ പറയു അതു വേറെ ഏത് എത്ര നല്ല കളിയുണ്ടെങ്കിലും ഫുട്ബോളാന്ന് മെയിൻ ഫസ്റ്റ് ആയിട്ട് കളി കാണാനിഷ്ടമില്ലേൽ കളിയ്ക്കാൻ ഇപ്പം ഇഷ്ടമുള്ളത് ഷട്ടിലാണ് മെയിനായിട്ട് ഷട്ടിലെന്നു പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ് ക്ലബ്ബിൽ ക്ലബ്ബിൻ്റടുത്ത് നാട്ടുകാരിങ്ങനെ ജസ്റ്റൊരു കോട്ടൊക്കെ എഴുതി ഇങ്ങനെ തുടങ്ങിയതാണ് പിന്നീട് ഡേയ്ലി ചെന്ന് കയ്യിൽ നിന്നു കളിച്ച് കളിച്ച് കളിച്ച് ഇതൊരു നല്ല ഇൻട്രസ്റ്റ് കൂടി പിന്നെ നല്ല കുറേ ആളേനു പ്രോത്സായ്പ്പിക്കാൻ തുടങ്ങിന് നിനക്ക് നല്ലൊരു ചാൻസ് നല്ലൊരു കളീൻ്റെ ടാക്ട്ടിക്സ് ട്രിക്സ് അറിയാന്നെ കുറച്ചു പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ പറഞ്ഞ് എനിക്ക് കുറച്ച് നല്ല അവസരം കിട്ടുക ചാൻസുണ്ട് നല്ല കളിക്കുന്നുണ്ട് നീ കുറച്ചും കൂടി ഇങ്ങനെ ബെറ്ററാക്കിയെങ്കിൽ നിനക്ക് ചാൻസ് കിട്ടുക ചാൻസ് കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ആൾ തന്നെ സപ്പോർട്ടിങ്ങെല്ലാം ഉണ്ടായി അതുകൊണ്ടാ മെയിൻ ഷട്ടിൽ ഇഷ്ടപ്പെടാനും കാരണം പിന്നെ കുറേ കളിച്ച് ഡേയ്ലി ഒരു എട്ടു മണിതൊട്ട് പന്ത്രണ്ട് മണിവരെ പന്ത്രണ്ടല്ല പതിനൊന്ന് പതിനൊന്നരവരെ കളിക്കുന്നുണ്ടാകും ഇങ്ങനെ ഒരു ഡേയ്ലി ആഴാ ഷട്ടിൽ മാത്രം നമ്മൾ കളിക്കുന്നെങ്കിലും ആടെ കുറേ ആൾക്കാർ കളിയ്ക്കാനുണ്ടാകും ഒരേ ടൈം നാല് ഡബിളായിട്ട് ഡബിൾസ്സാണ് കളിക്കുക ഇപ്പം നാലാൾക്കല്ലെ കളിയ്ക്കാൻ കഴിയൂ അപ്പം ഈ ബാക്കിയെല്ലാവരോടും കഥപറഞ്ഞും അതുകൊണ്ടു തന്നെ ഇങ്ങനെ എല്ലാവരും ഒന്നിച്ച് കൂടിയിട്ട് സംസാരിക്കുന്നതു കൊണ്ടു തന്നെ അതിനോട് നല്ല ഇൻട്രസ്റ്റ് തോന്നി എല്ലാവരെയും ഇങ്ങനെ തമാശയ്ക്കൊണ്ടും ഊക്കിക്കൊണ്ടും അത് അത് മിണ്ടുന്നതു കൊണ്ടു തന്നെ അങ്ങനെ കുറേ ടീമിനോട് മിണ്ടുന്നതു കൊണ്ടാണ് അതിനോടൊരു നല്ല വൈബ്ബ് കിട്ടിയപ്പം ഷട്ടിലിനോട് പിന്നെ ഇൻട്രസ്റ്റ് കൂടാൻ കാരണം പിന്നെ രാത്രിയിലത്തെ അവിടെ പോകാൻ വേറെ എവിടെയും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇറങ്ങത്തുണ്ടെന്നുണ്ട് വേറെ എവിടെയെങ്കിലും ആടെ ഈടെ പോകൽ ഇതിപ്പം ആടെ ആ ക്ലബ്ബ് തുടങ്ങിയിട്ടാണ് ഷട്ടിലിൻ്റെ ഒരു കോട്ട് സെറ്റ് ആക്കിയതിനു ശേഷം പിന്നെ ഡേയ്ലി അതു തന്നെ ആയി എല്ലാവരും ആടെ വരും കളിക്കും മിഠായി വാങ്ങും വരും പിന്നെ ഇങ്ങനെ ഞങ്ങൾ ടൂർണമെൻടുപോലെ നമ്മൾ നാട്ടുകാരുമാത്രായിട്ടുള്ള ലീഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും എല്ലാവരും ഇങ്ങനെ പറ്റും കുറേ പേരുണ്ട് നല്ല കളിക്കുന്ന അതു അതുകൊണ്ടു തന്നെ ഞങ്ങൾക്കൊരു നല്ല കോമ്പറ്റേറ്ററായിട്ട് കളിയ്ക്കാൻ പറ്റും നമ്മളെതിരെ ഒരാളുള്ളത് പോലെ ഞാനിപ്പോൾ ഒരാൾ ക ഞാനാ കുറച്ച് അത്യാവശ്യം കളിക്കുന്നുണ്ടെങ്കിൽ എനിക്കെതിരായിട്ട് നല്ല കളിക്കുന്നവർ തന്നെ വരുന്നുണ്ട് അതുകൊണ്ട് പ്രശ് അതുകൊണ്ട് നല്ല എഞ്ചോയ്മെൻ്റ് ചെയ്ത് കളിയ്ക്കാൻ പറ്റിയത് പിന്നെ എയ് ബൊ ഞാൻ കളിക്കുന്നുണ്ട് പിന്നത്തെ കളിക്കാത്ത മറ്റെ സേവാപ്പോസിറ്റ് വന്നെ പിന്നെ അതൊരു വൈബുണ്ടേലല്ല അത്ര കളിയ്ക്കാൻ നമുക്കൊരു മജ വേണ്ടെ കളിക്കുന്നാകുമ്പോൾ കളിയെന്നു പറയുമ്പോൾ ഒരു നല്ല വൈബ്ബാണ് മജയാണ് നല്ല ഇടകതിൻടൊരു ജസ്റ്റ് തുള്ളീ നല്ല തുള്ളിച്ചാടി കളിക്കാനൊരു മജ തന്നെയത് പിന്നെ ആ എന്തുകൊണ്ടു നല്ല വൈബ് തന്നെ പിന്നെ ഞമക്ക് കുറയേ ഇങ്ങനെ കുറേ ആൾക്കാരുണ്ടാകും അപ്പം ഇങ്ങനെ വെയ്റ്റാക്കി ഇത് പോയിൻസ്സൊക്കെ കുറച്ചിട്ട് കളിക്കേണ്ടി വരും ടോട്ടൽ പോയിൻട് ലാഗെല്ലാം ആക്കിയിട്ടാണ് കളിയ്ക്കൽ ഇങ്ങനെ കുറേ ആളുണ്ട് അല്ലെങ്കിൽ റിസ്ക്കാണ് ഭയങ്കര റിസ്ക്കെന്നല്ല അപ്പം നമുക്ക് കളിക്കുന്നവർക്കൊരലമ്പാകും വെയിറ്റാക്കുന്നവർക്ക് ഇങ്ങനെ ഹാപ്പിയാണ് ആ അവരിപ്പം കീയും മാത്ര പിന്നെ ഞമക്ക് ജയിക്കുന്നവർക്ക് കോർട്ടിൽ സ്ഥാനം ഉറപ്പിയ്ക്കുക ഇപ്പം ഞമ്മ രണ്ടാ ടീം ഓരോ സിഗ്നൽ ജയിച്ച ടീമിനെ തോൽക്കുവോളം കോർട്ടിൽ തന്നെ നിൽക്കുക അവർക്കിഷ്ടമുണ്ടാകുമ്പീനാ ഇപ്പം നമുക്ക് കളിച്ചിട്ട് ജയിക്കുന്നയാൾക്കാണവിടെ പ്രയോരിറ്റി കൂടുതൽ അതുകൊണ്ടാണ് മേനത് ഇഷ്ടപ്പെടാൻ നമ്മുടെ നാട്ടിൽ കളിക്കുന്നതു കൊണ്ട് അത് നമ്മൾ ഇഷ്ടപ്പെടാനും കാരണം ആയത് പിന്നെ ഒരു വൈബും അങ്ങനിങ്ങനെ നല്ല രീതിയിൽ പോകുന്നുണ്ട് പിന്നെ അത്യാവശ്യം കുറേ വലിയ നല്ല നല്ല ഷട്ടിലും അവർക്ക് ഷട്ടിലെന്നു പറയും വെയ്റ്റല്ല ഷട്ടിലാണ് അത് തന്നിട്ട് നമ്മളെ സപ്പോട്ടാക്കിയിട്ട് ഇതു കളിച്ചു നോക്ക് അപ്പോൾ കുറച്ചും കൂടി ഈസിയാകും ബെറ്ററാകും അങ്ങനിങ്ങനെ ഷട്ടിലിങ്ങനെ ഓരോ തരത്തിൽ തിരിക്കാനും പിടിക്കാനും ഈസിയാന്നൊക്കെ പറഞ്ഞു കുറച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ നല്ലൊരു ഇതാണ് ഇങ്ങനെ ഉള്ള ചില കാര്യങ്ങളാണ് പിന്നെ പിന്നെ എന്നെ നമ്മളെ ഹെൽപ് ചെയ്യാൻ കുറേ ആൾ മ കോർട്ടിലേക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എല്ലാവരും പങ്കിട്ട് പിന്നെ ഷട്ടിൽ ഞാനീ പണ്ട് ഞാൻ ജസ്റ്റ് ആൽവിൻടൊന്നിച്ചിട്ട് ജസ്റ്റ് കളിച്ചു കൊണ്ടേയ് പോ എനിക്ക് കറക്റ്റ് റൂൾസ് ആൻഡ് റെഗു അങ്ങനത്തെ അതൊന്നും അറിയില്ല ജസ്റ്റ് ഇങ്ങനെ ഈ കളിയ്ക്കുക രണ്ടുസൈഡൊക്കെ അടിച്ചിട്ട് ഓപ്പോസിറ്റുള്ള ആളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയ്ക്കുക അത്രമാത്രമേ ഒരിത് ഉണ്ടായിരുന്നു പിന്നെ ആന്നീ കോർട്ടിൻ്റെ കാര്യവും ഓരോ നിയമവും സീറോ വൺ അങ്ങനെ ഏയ്സ്റ്റേ സ്റ്റാട്ടിങ്ങ് അത് ഇതൊക്കെ പഠിച്ചത് അങ്ങനെയെല്ലാം ഇങ്ങനെ ഇവിടെ കളിയ്ക്കാൻ വ ശേഷം വലിയ ആളെ കളി ഫസ്റ്റ് അങ്ങനെ വൺ മന്ത് ടൂ മന്ത് അവർ കളി നോക്കി കൊണ്ട് ഉണ്ടായതാണ് എല്ലാവരും ഡേയ്ലി പിന്നെ അവർ തന്നെ ഇങ്ങനെ പറഞ്ഞതു പോലെ മെയിനായി നമുക്കാ കോട്ടും ഷട്ടിലും കളിക്കാതിരുന്നിട്ടുണ്ടായില്ല അപ്പോൾ ഈ കോട്ട് ചെയ്യാൻ ഹെൽപ് ആക്കിയിട്ടവർക്ക് പൈസ കുറച്ച് ഇങ്ങനെ ചെയ്യിപ്പിക്കൊ പൈസ ആ ഹെൽപ്പായിട്ട് പൈസ കൊടിത്തിട്ട് നമ്മളുടെ അടുപ്പിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഓറ് ഞമ്മളോടില്ല്യ ഇനിയിങ്ങനെ ജസ്റ്റ് എപ്പോഴും സ്റ്റാട്ടിങ്ങാണ് ഫുള്ള് ബള്ളായി ചാടി ഇല്ലെ പൊടിപാറും എന്നു പറഞ്ഞു നമ്മൾ ഐനെങ്ക് ഒറ അ നമ്മൾ ഒരു പതിനൊന്ന് പതിനൊന്നര വരെ ഉണ്ടാകും പിന്നവരൊരു രണ്ടു മണി ഒരു ഒന്നര വരെ അവർ കളിക്കലാണ് അങ്ങനിങ്ങനെ രണ്ടു ടീമും അപ്പുറവും ഇപ്പുറവും കളിച്ചു കൊണ്ട് പോകുന്നത് നല്ല വൈബും ഇതൊക്കെ ആയിട്ട് ടൈം മെയ്ടെയ്ൻ നല്ല കുറേ ടൈം എല്ലാവരും കളിച്ചു കൊണ്ട് ഉണ്ടാകും പിന്നെ ഇങ്ങനേ ഇത് തമാശകളും പിന്നെ വലിയൊരു ഒരിക്കൽ നമ്മൾ എപ്പോഴും ഔട്ഡോറാണ് എല്ലാവരും ഇങ്ങനെ പഠിച്ചുവെച്ചേച്ച് ഇൻഡോർ ടൂർണമെൻ്റൊക്കെ വെച്ച് അതിൽ സെക്കൻഡടിച്ചു ഫസ്റ്റ് പോയി ഇനി അവിടെ വലിയ രണ്ടു മൂന്നാൾ നല്ല കളിക്കുന്ന പ്ലെയേസാണ് അവർക്കാണ് അങ്ങനെ സെക്കൻഡടിച്ചിട്ടുണ്ടായി